ഹലോ ഇത് കെ സി ബി ഓഫീസല്ലേ സാർ നമ്മളിവിടെ കറണ്ടില്ല നമ്മുടെ ഈ ഏരിയ ഫുള്ളായിട്ട് മൊത്തത്തിൽ കറണ്ടില്ല എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല ഒരു കാറ്റ് നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കറണ്ട് പോവായിരുന്നല്ലോ അത് വേറെ ഡിസ്റ്റർബൻസൊന്നും ഇല്ലായിരുന്നു അപ്പം എൻ്റെ വീട്ടിൽ മാത്രം പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കറണ്ട് മൊത്തത്തിലായിട്ട് പോയതാണ് എന്താണെന്ന് അറിയത്തില്ല ഓ ഒന്ന് വന്ന് ചെക്ക് ചെയ്യുമോ കറണ്ടില്ലാതെ പറ്റത്തില്ല ഇവിടെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട് കുഞ്ഞു കുട്ടികൾ അങ്ങനെ ഉണ്ട് വീട്ടിൽ അപ്പം വട്ടത്തിൽ ഇപ്പോഴാണെങ്കിൽ ചൂടിൻ്റെ സാഹചര്യം ഉണ്ട് ഫാനില്ലാതെ ഒട്ടും ഇരിക്കാനും പറ്റത്തില്ല ഒന്ന് വന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്മുടെ കൺസ്യൂമർ നമ്പർ എന്ന് പറയുന്നത് എട്ട് നാല് ആറ് ഏഴ് ഒന്ന് ഇപ്പം വീടിനടുത്തൊന്നും ഇല്ല മേൽഭാഗത്തും അങ്ങോട്ടൊന്നും ഇല്ല മൊത്തത്തിൽ പോയതാണ് വലിയ രീതിയിൽ കാറ്റ് ഇടിയും മഴ അങ്ങനൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു കാറ്റ് വന്നു പെട്ടെന്ന് തന്നെ കറണ്ട് പോവുകയാണ് ചെയ്തത് മരങ്ങൾ ഒടിഞ്ഞ് വീഴത്തക്ക രീതിയിലുള്ള കാറ്റുകളൊന്നും ഇല്ലായിരുന്നു എന്താണെന്ന് അറിയത്തില്ല കറണ്ട് പോയി തന്നെ കണ്ടില്ല അപ്പം ഒന്ന് വന്ന് നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു അവിടുന്ന് ആളെ അയക്കുമോ ഓഹോ ഹോ ഹോ ആഹാ അല്ല ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുകാരാണ് അടുത്തടുത്ത് താമസിക്കുന്നവരാണ് ആ ഏരിയയിലോട്ടാ കരണ്ടില്ലാത്തത് ഓ ഓക്കെ ശരി താങ്ക് യൂ സാർ